ഹലോ ആ ജിൻസി

ആ ജിൻസി ഞാൻ മോൾടെ മുടി കഴിഞ്ഞ ദിവസം പോയി വെട്ടിയായിരുന്നു ആപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീട്ടിൽ അവളുടെ മുഖത്തിനും നന്നായിട്ടിണങ്ങുന്നുണ്ട് നല്ലൊരു ഹെയർ സ്റ്റൈലാണെന്നാണ് എല്ലാവരും പറയുന്നത് ആ അതിന് പിന്നെ നന്ദി ആ അതിനെപ്പറ്റിയൊന്ന് നന്ദി പറയാം പിന്നെ ഇനിയാരെയെങ്കിലുവൊക്കെ ആരോടെങ്കിലുവൊക്കെ ഞാനിങ്ങനെ പറയാം ഞാനിന്നടത്താണ് മുടി വെട്ടിയതെന്നും വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ജിൻസിടടുത്തേക്ക് പറഞ്ഞ് വിടാം അതെ ആ കാരണം അത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു നല്ല നല്ല സ്റ്റൈലായിട്ടുണ്ട് അത് നന്നായിട്ടത് ചെയ്തു അവളുടെ മുഖത്തിന് പറ്റിയ രീതിയിൽ തന്നെ ആണ് അത് ചെയ്തു വച്ചിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുതന്നെയല്ലാ അതിന് ചാർജും വലുതായിട്ടൊന്നുവില്ല നിങ്ങൾ മാന്യമായ രീതീൽ ചാർജ് വാങ്ങിച്ചിട്ടുള്ളൂ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനെ അതിനെപ്പറ്റിട്ടൊന്ന് പറയാൻ വേണ്ടീട്ടായിരുന്നു പിന്നെ കസ്റ്റമേഴ്സ് വേറെ ഒത്തിരി വരുന്നുണ്ടോ

ആ ആ ആ ആ അത് നല്ലൊരു പരസ്യവും കൂടി കൊടുക്കാൻ മേലായിരുന്നോ നിങ്ങൾക്ക് അല്ല നിങ്ങൾക്കണേലു ഒരു പരസ്യവൊക്കെയായിട്ടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് കൊടുക്കുന്നത് നല്ലകാര്യം ആ പറയാം പറയാം പറയാം ഇനിയും വരാം ആ അങ്ങനെയുള്ള ആവശ്യം

ആ ഞാൻ നമ്മുടെ കസിൻസിനോടുവൊക്കെ ഞാൻ പറഞ്ഞോളാം ഇങ്ങനെ കല്യാണാവശ്യങ്ങൾക്ക് ആ ആ പറഞ്ഞോളാം പറഞ്ഞോളാം ആ ആ ആ ആ ആ സ്ഥിരം സ്ഥിരം കസ്റ്റമേഴ്സാവുമ്പം നമുക്ക് അതിനനുസരിച്ച് സർവീസൊക്കെ വാങ്ങിച്ച് അങ്ങനെ ആൾക്കാരെ നമുക്ക് കൂടുതലായിട്ടടുപ്പിക്കാൻ പറ്റും ആ ആ കളറ് ചെയ്യാനായിട്ടിപ്പം ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ വരാവേ എനിക്കുവൊന്ന് കളറ് ചെയ്യാനൊന്നു താല്പര്യവുണ്ട് കാരണം എല്ലാവരും ചെയ്തത് കാണുമ്പോൾ ഒരു താല്പര്യം തോന്നുന്നുണ്ട് അപ്പം പിന്നെ ആ ആ ആ ആ ആ ഇല്ല ഇല്ല അത് ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞോളാം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് റേറ്റും വളരെ കുറവാണ് നമുക്കിഷ്ടപ്പെട്ട രീതീൽ നമ്മളോടും കൂടി അഭിപ്രായമൊക്കെ ചോദിച്ച് നമ്മൾടെടുത്ത് താൽപര്യവാണോന്നു നോക്കീട്ടൊക്കെയാണവർ ചെയ്യുന്നത് നമ്മുടെ ആ സ്റ്റൈലൊക്കെ ഒക്കെ ഞാൻ പറഞ്ഞോളാം അതിനെപ്പറ്റി കുഴപ്പവൊന്നൂല്ല ശരിയെന്നാൽ ഓക്കെ